ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിച്ചിട്ടുള്ള പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഏതൊരു ശത്രുവിനെ ആണെങ്കിലും നമ്മൾ മിത്രത്തെപ്പോലെ കാണണം എന്നാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരേം കൊണ്ടും നമ്മൾക്കെപ്പോഴെങ്കിലും ഒക്കെ ഉപകാരപ്പെട്ടേക്കാം നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ദേഷ്യം ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകഴിഞ്ഞ് കഴിഞ്ഞാൽ അതെല്ലാം ഒഴിവാക്കി കളയണം അങ്ങനത്തൊരു ചിന്താഗതിയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ചിലരുണ്ടാവും ദേഷ്യമിങ്ങനെ മനസ്സിൽ വെച്ചിട്ട് ആരോടും സംസാരിക്കാണ്ട് ഇപ്പോൾ അവർ വന്ന് നമ്മളോട് മിണ്ടിയാലും നമ്മൾ അങ്ങോട്ടേക്ക് ദേഷ്യം കാണിച്ച് നടക്കുന്ന അതെനിക്ക് വലിയ താല്പര്യമില്ലാത്ത ഒരു കാര്യമാണ് നമ്മളൊക്കെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒരേപോലെ ഒരുനാൾ മരിക്കേണ്ട ആൾക്കാരാണ് അപ്പോൾ നമ്മൾ നല്ലരീതിയിൽ അവരോട് നിൽക്കുന്നതിനനുസരിച്ച് നമ്മളോട് ഇങ്ങോട്ട് നല്ല രീതിയിൽ നിൽക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയുണ്ട് അപ്പോൾ ഏതൊരു ശത്രുവാണെങ്കിലും എന്തു പ്രശ്നമുണ്ടെങ്കിലും നമ്മൾ എന്തായാലും അവരോട് മിണ്ടണംന്നാണ് എൻ്റൊരു അഭിപ്രായം കാരണമെന്ന് വെച്ചുകഴിഞ്ഞാൽ എല്ലാവരും ഒരുനാൾ മരിക്കേണ്ടവരാണ് അപ്പോൾ ഈ വൈ വൈരാഗ്യവും എല്ലാം കൊണ്ട് നടന്നിട്ട് കാര്യമില്ലല്ലോ പിന്നെ മരിച്ച് കഴിയുമ്പോൾ ഇവർ പറയും നല്ലൊരാളായിരുന്നു അങ്ങനെ ഇങ്ങനെ അങ്ങനെ പുകഴ്ത്തുന്നതിലും എനിക്ക് താൽപ്പര്യമില്ല കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ നല്ലരിതിയിൽ പെരുമാറിക്കഴിഞ്ഞാൽ അവരുടെ ദേഷ്യോം കാര്യങ്ങളൊക്കെ അവരുടെയും പോകും പിന്നെ നമ്മക്കും നല്ലൊരു സന്തോഷോം കാര്യങ്ങളൊക്കെയുണ്ടാവും അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഞാൻ ജീവിതത്തിൽ പഠിച്ചിട്ടുള്ളൊരു കര്യം എന്ന് പറഞ്ഞാൽ